ഹലോ നമസ്കാരം ഇത് സാർ ഇതിന് ഇപ്പം അനിയന് കൊടുക്കാനുള്ള കുറച്ച് ഗിഫ്റ്റിനെ കുറിച്ചിട്ട അറിയണം അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടിള്ള ടി വി വാഷിംഗ് മെഷീൻ ടി വികളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും അതിൻ്റെ ഓഫേർസ് ഒന്ന് അറിയണം ഇപ്പം പുറത്തിന്ന് ഒരു ഓഫാറെ കുറിച്ച് അറിഞ്ഞിട്ട് വന്നതാണ് ഇങ്ങോട്ട് അതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ ഒക്കെ ഒന്ന് അറിയണം ഒന്ന് പറഞ്ഞ് തന്നോ

ആ ടി വി ഉണ്ട് ടീവീനെ കുറിച്ചിട്ടാണ് ടി വിയിൽ വരുന്ന ഓഫേർസ് ഏതൊക്കെയാണ്

അതിൻ്റെ പ്രൈസും കാര്യങ്ങളും എങ്ങനെ ആയിരിക്കും വരുക അതെ അതെ സ്റ്റാർട്ടിംഗ് പ്രൈസ് അറുപത്തി നാല് ഇഞ്ച് ടി വി യുടെ പ്രൈസ് എത്രയാണ്

ഫ്രിഡ്ജ് നോക്കാണെങ്കിലോ ആ ഫ്രിഡ്ജ് നോക്കാണെങ്കിൽ എങ്ങനെ ആയിരിക്കും റേറ്റ് ഡബിൾ ഡോർ ഉള്ള

ഇതിൻ്റ ഗ്യാരണ്ടീന്ന് പറയുമ്പം എത്രയാണ് വരുക

ആ അതെ ഗിഫ്റ്റ് കൊടുക്കാനാണ് അപ്പം അതിൻ്റെ ഗ്യാരണ്ടി കാര്യങ്ങൾ ഒക്കെ എങ്ങനെ അഞ്ച് വർഷം ആണോ അതോ കൂടുതൽ ഉണ്ടോ ഓ ഡബിൾ ഡോറിൻ്റ സ്റ്റാർട്ടിംഗ് എത്ര ആണ് പ്രൈസ് ആകുക അതെ അല്ലെ എ സിയിലേക്ക് വരുകയാണെങ്കിൽ അതെ ഒരുപാട് ഇലക്ട്രിസിറ്റി വലിക്കുമോ അത് അതായത് ഇലക്ട്രിസിറ്റി ഒരുപാട് വലിക്കുമോ ഇലക്ട്രിസിറ്റി ഒരുപാട് വലിക്കുമോ ഉണ്ടല്ലെ അങ്ങനെ ആണെ വേൾപൂളിൻ്റ ഡബിൾ ഡോർ ഡബിൾ ഡോറിൻ്റ ഫ്രിഡ്ജ് നോക്കാം ഓക്കെ എന്നാൽ പിന്നെ അത് എടുക്കാം സാംസങിൻ്റെ എങ്ങനെ ആണ് ഇതിൻ്റ ബാക്കി കാര്യങ്ങൾ ഇത് റെഡി ക്യാഷ് ആയിട്ട് എടുക്കാൻ ആണ് റെഡി ക്യാഷ് ആയിട്ട് എടുക്കാൻ ആണ് ആ അപ്പം നമുക്ക് റെഡി ക്യാഷ് ആയിട്ട് ചെയ്യാം ഒരു ഗ്രേ കളർ മതി ആ ഓക്കെ ശരി